ക്യാൻസർ ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്ക് ചികിത്സക്കുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട് ആ നമുക്കിവിടെ അടുത്താണെങ്കിൽ തന്നെ ഒരുപാട് നല്ല ഹോസ്പിറ്റലുകളുണ്ട് മൾട്ടിസ്പെഷ്യലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പോഴത്തെ മെഡിക്കൽ സംവിധാനം വളരെ മെച്ചപെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അസുഖങ്ങൾ ചകിത്സിക്കാൻ വളരെ നല്ല ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ട് ഇപ്പം ക്യാൻസിനാണെങ്കിൽ തന്നെ ആ തിരുവന്തപുരത്ത് ആർ സി സി ഉണ്ട് ആർ സി സി ഉള്ളപ്പോൾ നമ്മൾ ക്യാൻസറിന് വേറങ്ങു അങ്ങനെ പോകാറില്ല കാരണം അവിടെ തരുന്ന മരുന്നും കെയറൊക്കെ ഭയങ്കര നല്ല ഒരു ഇതാണ് പിന്നെ ക്യാൻസറൊക്ക ആദ്യത്തെ സ്റ്റേജിലാകുമ്പോൾ നമുക്ക് കീമോ ചെയ്താൽ അത് മാറാവുന്നതാണ് എന്നാൽ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സർജറിയിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ മെഡിക്കൽ സംവിധാനം വളരെ നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല ആൾക്കാർക്ക് ഒരുപാട് മനുഷ്യർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ട് ഹൃദ്രോഗങ്ങൾ പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ ജീവിത ശൈലി രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിത ശൈലികളിൽ നിന്ന് ആ പ്രെഷറും ഷുഗറും കൊളസ്ട്രോള് പോലുള്ള രോഗങ്ങൾ നമുക്ക് വരാറുണ്ട് കൊളസ്ട്രോളക്കെ ഒരു പരിധി വിട്ട് കൂടിയാൽ തന്നെ നമുക്ക് സ്ട്രോക്ക് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത ഒരുപാടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഇപ്പം പ്രഷറാണ് പ്രഷറക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസായിട്ട് നമ്മൾ മരുന്നെടുക്കെണ്ടി വരും അപ്പോൾ മരുന്ന് നിർത്താൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശനങ്ങൾ ഈ അസുഖങ്ങൾക്കൊണ്ടെങ്കിലും ഇതിനെല്ലാം ഇപ്പോൾ മരുന്നുണ്ട് ഇപ്പം ഇതിനെല്ലാം മരുന്നുണ്ട് ഇത് ചികിത്സിക്കാൻ പല തരത്തിലുള്ള വഴികളുണ്ട് അങ്ങനെ നല്ലൊരു മെഡിക്കൽ സംവിധാനം നമുക്കിപ്പോൾ ഉണ്ട് പിന്നെ ഒരുപാട് തരത്തിലുള്ള സാധാ അസുഖങ്ങളും ആ കൂടുതൽ ആക്സിഡൻറ്റ്സക്കെ വരുന്നണ്ട് തന്നെ അങ്ങനെ ഫിസിയോ തെറാപ്പി പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ആൾക്കാർക്ക് ഇതൊക്കെ അഫോഡബിളായിട്ടുള്ള താങ്ങാൻ പറ്റാവുന്ന വിലയിൽ തന്നെ മനുഷ്യരിലേക്കെത്തിക്കാൻ ഇപ്പോഴത്തെ മെഡിക്കൽ സംവിധാനത്തിന് സാധിക്കുന്നുണ്ട് ഇപ്പം കിഡ്നി ഫെയ്ലിയാറായ ആൾക്കാർക്ക് ഡയാലിസിസ് ചെയ്യുന്നത് പോലെ അത്രയും എക്സ്പെൻസീവല്ലാത്ത രീതിയിൽ അവർക്കക്കെ അത് ചെയ്ത് കൊടുക്കാൻ ഇപ്പം ഗവമെൻറ്റിന് സാധിക്കുന്നുണ്ട് ഗവണ്മെൻറ്റിൻറ്റെ സംരംഭം ജനൗഷധി പോലുള്ള സംരംഭങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ കുറഞ്ഞ വിലയിലെല്ലാവർക്കും മരുന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ ഗവൻമെൻറ്റ് ചെയ്യുന്നുണ്ട് കേന്ദ്രസർക്കാരാണെങ്കിലും കേരളസർക്കാരാണെങ്കിലും എല്ലാവരും മെഡിക്കൽ ഫീൽഡിനെ ഒരുപാട് മുൻഗണ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇതൊരു വളരെ നല്ല കാര്യമാണ് ഇത് മനുഷ്യർക്കിപ്പം താങ്ങാവുന്ന താങ്ങാവുന്ന വിലയിലാണ് അതിപ്പോൾ അതിപ്പോൾ കിട്ടികൊണ്ടിരിക്കുന്നത്